നിങ്ങളുടെ മതത്തെക്കുറിച്ച് പഠിക്കുന്നത് നിങ്ങളുടെ സ്കൂൾ പാഠ്യ പദ്ധതിയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ മതം എപ്പോഴും സ്നേഹത്തിൻ്റേയും ത്യാഗത്തിൻ്റേയും വിട്ട് കൊടുക്കലിൻ്റേയും കാരുണ്യ പൂർവ്വം ഇടപെടുന്നതിൻ്റേയും സഹജീവികളോട് കരുണാദ്രമായി പെരുമാറുന്നതിൻ്റേയും പാഠങ്ങളാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഈശോയുടെ മാതൃക തന്നെയാണ് മതം ഞങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് ഈശോ എങ്ങനെ ജീവിച്ചുവോ എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ ഞങ്ങളുടെ മതവും ഞങ്ങളോട് പറയുന്നത് ഈശോയുടെ മാതൃകയെ മുൻനിർത്തിയാണ് അതാണ് ഞങ്ങളുടെ ലക്ഷ്യവും ഈശോയെ അകന്ന ലക്ഷ്യത്തിലേക്ക് ജീവിക്കുവാനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ജീവിതത്തെയും സമൂഹത്തെയും കുറിച്ച് ഉള്ള വീക്ഷണം പറയുകയാണെങ്കിൽ ഈ മതപരമായ പഠനങ്ങൾ ജീവിതത്തെക്കുറിച്ച് നല്ലൊരു മൂല്യത്തോടെ ജീവിക്കുവാനും സമൂഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവരോട് സ്നേഹാർദ്രമായി ഇടപെടാനും പാവങ്ങളായിട്ടുള്ളവരോട് ഏറ്റവും സഹിഷ്ണുതയോടെയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും പാവങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളെ കൂടുതൽ പഠിപ്പിക്കുവാനും എല്ലാം ശ്രദ്ധ ചെലുത്തുന്നത് ഈ മതം തന്നെയാണ് ഈ മതം ഞങ്ങളെ എന്നെന്നും ഈശോയിലേക്ക് വളർത്തിയിട്ടുണ്ട് ജീവിതത്തെ എന്നെന്നും കരു പിടിപ്പിക്കുവാനും സ്നേഹത്തിൻ്റെ അടിത്തറ പാകി മുൻപോട്ട് കൊണ്ടു പോകാനും ഞങ്ങളെ സഹായിക്കുന്നത് മതമാണ് മതം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഈ ക്രിസ്ത്യാനിയായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മതം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തറയാണ് മിശിഹായാണ് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ഈശോയാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് ഈശോൻ്റെ സ്നേഹമാണ് എൻ്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അവിടത്തെ വലിയ കരുണയും സ്നേഹവുമാണ് അതിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ സമൂഹത്തിലുള്ള എൻ്റെ സഹോദരങ്ങളോട് സഹിഷ്ണുതയോടെയും അവരുടെ ജീവിതത്തെ ഏറ്റവും ആർദ്രതയോടെയും നോക്കി കാണുവാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ മതമാണ് ക്രിസ്റ്റി അനിയാ ക്രിസ്തു അനുയായി ആയിരിക്കുന്നതിൽ ഞാനഭിമാനം കൊള്ളുന്നു ക്രിസ്തുവിൻ്റെ അനുയായിയായി എന്നെന്നും ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്കു വേണ്ടിയുമാണ് ഞാനനുദിനവും പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിത വ്യാപാരങ്ങളിൽ എന്നെന്നും ഈശോടെ ചേർന്ന് നിൽക്കുവാനും ഈശോയ്ടേതായിട്ട് മാത്രം എന്നെന്നും മുന്നോട്ട് നീങ്ങുവാനുമുള്ള വലിയ കൃപയ്ക്കും അനുഗ്രഹം അനുഗ്രഹത്തിനും വേണ്ടി ഞാനെന്നും പ്രാർത്ഥിക്കാറുണ്ട് ക്രിസ്തുമതം എപ്പോഴും ജീവിതത്തെ പോസിറ്റീവ് നിലപാട് പുലർത്തുവാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് അനുദിന ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളിലും ഈശോയുടെ തൃക്കരമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചതും ഈ മതമാണ് ബൈബിൾ വചനം എൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് വചനം എൻ്റെ ജീവിതത്തിൽ എന്നോട് സംസാരിക്കുന്നു ഈ വചനത്തിലൂടെ ഈശോ തന്നെയാണ് എന്നോട് സംസാരിക്കുന്നത് ഇതെല്ലാം ഞങ്ങളുടെ മത ജീവിതത്തെക്കുറിച്ച് മതത്തെക്കുറിച്ച് പഠിക്കുന്നത് എൻ്റെ സ്കൂൾ പാഠ്യ പദ്ധതിയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടി കലർന്ന് ജീവിക്കുന്നതാണ് ഒരു ജീവിതമേയുള്ളു ആ ജീവിതം ഏറ്റവും സന്തോഷകരമായും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നതിനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു